ഇന്നത്തെ കാലത്തെ സ്മാർട്ട് ഫോണുകൾ നമുക്ക് വളരെ ഏറെ ഉപകാരം ചെയ്യുന്നതാണ് കാരണം നമുക്ക് അതുവഴി പൈസയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൈസ എ ടി എം വഴി ഗൂഗിൾ പേ ചെയ്യാം അതുപോലെതന്നെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ അയക്കണമെങ്കിൽ അയക്കാം നമുക്ക് അവരെ വിളിച്ച് നമുക്ക് സംസാരിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി അതുപോലെതന്നെ വീഡിയോ കോളിലൂടെ നമുക്കവരോടു സംസാരിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല നല്ല കാര്യങ്ങളും ഒണ്ട് നമുക്ക് ഫോൺ ഫോണെന്നു പറഞ്ഞൊരു സാധനം വളരെ ഉപകാരവും അതുപോലെ തന്നെ ഉപദ്രവവും ഉള്ള ഒരു കാര്യമാണ് കാരണം എന്നു വെച്ചാൽ കഴിഞ്ഞാൽ ഫോണിലൂടെ ഇപ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ അനാവശ്യമായിട്ട് ഓരോത്തരുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതും എടുക്കുന്നതും അതിലൂടെ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെടുന്നതും ഇപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതു നമ്മുടെയൊക്കെ നമ്പറുകൾ ആരെങ്കിലുമൊക്കെ ശേഖരിച്ച് നമ്മളെ വിളിക്കുകയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അങ്ങനെ കുടുംബ ജീവിതങ്ങൾ തന്നെ എത്രയോ പേരുടെ തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പാരെയെങ്കിലും കണ്ട് വിളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ വിളിച്ച് നമുക്കവരോട് സംസാരിക്കാൻ അവരെ കണ്ടു നമ്മൾ സംസാരിക്കണോ നമുക്ക് ഒന്നു കൂടി അങ്ങനെ ഫോണിൽ നിന്നു നമുക്ക് നല്ലാതായിട്ടുള്ള ഒത്തിരി ഒത്തിരി ഗുണങ്ങളും നമുക്ക് പൈസയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എമർജൻസിയായിട്ടൊന്ന് അയച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവർക്കു പൈസയയച്ചു കൊടുക്കാനും ഗൂഗിൾ പേ വഴി പൈസ അയച്ച് അക്കൗണ്ടിൽ പൈസ ഗൂഗിൾ പേ വഴി അവർക്കു പൈസ അയച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ നല്ല ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഫോണിലൂടെ നടക്കുന്നുണ്ട് അതുകാരണം നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അതിൻറ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതു മാത്രം നമ്മൾ കൈകാര്യം ചെയ്യുക ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ അതിനകത്ത് ഇടുവോ എടുക്കുവോ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഫോണിലൂടെ അതുപോലെതന്നെ നമ്മുടെ പിള്ളേരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം അനാവശ്യമായിട്ടു ഫോണുകളൊന്നും ഉപയോഗിക്കരുത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയൊരിതാണ് ഫോൺ പക്ഷെ അതു ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിനെന്നും ആനന്ദം തരുന്ന ഒരു കാര്യമാണ് ഫോൺ